ശ്വസന നിയന്ത്രണം എന്നു പറഞ്ഞാല് പാട്ടിന് ഒരുപാട് പ്രാധാന്യം കല്പ്പിക്കുന്ന ഒരു സ സംഭവമാണ് കാരണം പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ശ്വസനം ഏതൊരു പാട്ടിനേയും നമുക്ക് അത് കണ്ട്രോളില് നിര്ത്തണമെങ്കിൽ ശ്വസനം നമ്മൾ അത്രയും അനിവാര്യമാണ് ഇവിടെ മോ എന്റെ മോൻ ചെറു ഞങ്ങളിവിടെ പാട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ഇവിടെ അടുത്തു തന്നെ ഒരു മ്യൂസിക്ക് അക്കാദമി ഉണ്ട് അവിടെയാണ് അവന് പോകുന്നത് രാവിലെ അതായത് പുലര്ച്ച അഞ്ച് മണിക്ക് സാധകം ചെയ്യാനായിട്ട് ആ അക്കാദമിയിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് കുട്ടികളുണ്ട് അവരും അവന്റെ അധ്യാപകരും കൂടിയിട്ട് അഞ്ചുമണിയാകുമ്പോൾ അടുത്തു തന്നെ ഒരു കുളമുണ്ട് ആ കുളത്തില് പോയിട്ടാണ് സാധകം ചെയ്യൽ അപ്പോള് ദിവസേന എന്നും ചെയ്യുന്നതു കൊണ്ടായിരിക്കാം അവൻ ശ്വസനത്തെ ഒരുപാട് നിയന്ത്രിക്കാനും ഏതൊരു പാട്ട് വന്നാലും ഒരു വിധം പ്രയാസം കൂടാതെ അവൻ ആ പാട്ട് പാടി ഫലിപ്പിക്കാനും സാധിക്കുന്നുണ്ട് മോനിങ്ങനെ ഒരു കഴിവ് കിട്ടിയത് കഴിവുണ്ട് ഞങ്ങൾ കണ്ടതും അവന്റെ അച്ഛനിലൂടെയാണ് അച്ഛന് നല്ലവണ്ണം പാടും ഏതൊരു പാട്ടും അനായാസം പാടി ഫലിപ്പിക്കാന് അവന്റെ അച്ഛന് എത്ര നേരവും ശ്വാസം എടുത്തു പാടാൻ അവർക്ക് കഴിയും അപ്പം മോനിൽ ആ കഴിവ് കണ്ടതുകൊണ്ട് അടുത്തു തന്നെയുള്ള മ്യൂസിക്ക് അക്കാദമിയിൽ മോനെ ചേര്ത്തി മോനിപ്പോൾ ഒരുവിധം തെറ്റില്ലാതെ പാടുന്നുണ്ടേനും പിന്നെ എന്നും അതായത് ദിവസേന നമ്മൾ എത്രത്തോളം പരിശീലിപ്പിക്കുന്നോ അത്രത്തോളം നമ്മൾ പരിസ് നമ്മളെ ശ്വസനം ആ രീതി അത്രയും ക്ലിയറായിട്ടു വരും അപ്പം അവനായി എന്നും രാവിലെ എണീറ്റിട്ട് കുറേ സമയം സാധകം ചെയ്യും വീട്ടിലിരുന്നിട്ടു തന്നെ ഏതൊരു പാട്ട് അവന് പഠിക്കുന്നോ ആ പാട്ട് ഒരു അഞ്ചാറു പ്രാവശ്യം ഡെയിലി ചൊല്ലി പഠിച്ച് ആ രീതിയിലൂടെ അവനത് പഠിച്ചെടുത്തിട്ടാണ് ഏതൊരു സ്റ്റേജിലായാലും എവിടെയായാലും അവന് അവതരിപ്പിക്കല് അപ്പോൾ ശ്വസനമെന്നു പറഞ്ഞാൽ പാട്ടിനെ പാട്ടിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിനു വേണ്ടത് സാധകം തന്നെയാണ്